കന്നുകാലികൾ ജനിച്ച കിടാങ്ങളെ പരിപാലിക്കുന്ന പരിപാലിക്കുന്നത് അതിനെ സമയത്തുള്ള അതിൻ്റെ ജനിച്ച ഉടനെ തന്നെ ആദ്യം ചെയ്യുന്നത് തന്നെ പശുക്കിടാവിനെ പശു പശുവിൻ്റെ പാല് കുടിപ്പിക്കണം പിന്നെ സമയത്തതിനെ ഇതിനൊക്കെ മരുന്നുകള് കൊടുക്കാനുണ്ട് മൃഗാശുപത്രിയിൽ പോയി അതിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മരുന്ന് വാങ്ങിക്കണം പ്രത്യേകിച്ചും തള്ളയുടെ അടുത്ത് കിടത്തണം തള്ളയുടെ പാല് കുടിപ്പി കുടിക്കണം പിന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം മെയിൻ ആയിട്ട് അതാണ് പരി പരിപാലിക്കുന്നത് പിന്നെ മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത് തള്ളയുടെ പാലാണ് തള്ളയുടെ പാലാണ് അത് കുടിക്കുന്നത് പിന്നെ പാല് കുടിക്കാത്തതിന് ആണെങ്കിൽ കൂടി എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മൃഗാശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ ഡോക്ടറെ കൊണ്ട് വന്ന് അതിന് മരുന്ന് വാങ്ങിച്ച് കൊടുക്കണം അതാണ് മെയിൻ ആയിട്ട് നമ്മള് ചെയ്യേണ്ടത് എപ്പോഴും അതിനെ പരിപാലിക്കണം നോക്കിയില്ലെങ്കില് അതിനൊക്കെ അസുഖം വരും അത് നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകും തള്ളയ്ക്കും അസുഖം ഉണ്ടോ എന്ന് നോക്കണം പിന്നെ അതിനെ കാലി തൊഴുത്ത് എപ്പോഴും വൃത്തി ആയിരിക്കണം

കന്നുകാലിയെ കൊതുകിൽ നിന്നും മോചിപ്പിക്കണം അതിന് ഞങ്ങളൊക്കെ ചെയ്യുന്നത് വൈകുന്നേരം ആകുമ്പോൾ കുറെ പുകയ്ക്കും പുക കിട്ടുമ്പോൾ കൊതുകൊക്കെ ഓടും അങ്ങനെയാണ് ഞങ്ങള് പരിപാലിക്കുന്നത്